ഇവിടെ മത്സ്യത്തൊഴിലാളികളില് പല തരം ജാതിയിൽ പെട്ട ആൾക്കാര് നമ്മുടെ ഇവിടെ മത്സ്യത്തൊഴിലാളികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അവര് കൂടുതലായിട്ടും ഈ ക്രിസ്ത്യാനി വിഭാഗത്തിൽ പെട്ട ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും മീൻ പിടിക്കാൻ വരുന്നത് പിന്നെ അല്ലാത്ത ജാതിയിൽ പെട്ട ആൾക്കാര് ഇപ്പോൾ മുസ്ലിംസാണെങ്കിലും ക്രിസ്ത്യ ഹിന്ദുക്കളാണെങ്കിലും എല്ലാ ജാതിയില് എന്താ പറയുക എല്ലാ മതത്തിൽ പെട്ട ആൾക്കാരും നമ്മുടെ മത്സ്യബന്ധനത്തിനൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക ഈ ജാതി മതി മതം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അവര് എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നതും അതായത് ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് എല്ലാവരും എന്താ പറയുക ഒരേപോലെയാണ് ജീവിക്കുന്നത് കാരണം അവരുടെ വീടിന് മതിലുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നൂല്ല അവരെല്ലാരും ഒരേപോലെ ജീവിക്കുന്നു അതായത് വലിയ എന്താ പറയുക ഇപ്പോൾ പണക്കാര് പാവപ്പെട്ടവര് അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലാണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് അവര് ജീവിക്കുന്നത് അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പൊതുവായിട്ട് കുറെ ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മുടെ ബീച്ച് ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും ഇവരാഘോഷിക്കുക ഇവരുടേതായ ഉത്സവങ്ങള് ഇവരുടെ അമ്പലങ്ങൾ ഇല്ലെങ്കില് മുസി പള്ളികള് മുസ്ലീം പള്ളികള് അല്ലെല് ക്രിസ്ത്യൻ പള്ളികള് ഇങ്ങനത്തെ അവിടെ അവിടേക്കാണ് കൂടുതലായിട്ടിവര് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കാഘോഷിക്കാറ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കാറ്